ഓരോ പ്രദേശം അനുസരിച്ചാണ് മഴ വിനോദ സഞ്ചാരികളെ ആകർഷിക്കുകയും ഒക്കെ ആയിട്ട് ചെയ്യുന്നത് പല സ്ഥലങ്ങളിലും മൺസൂൺ ടൂറിസം എന്നുള്ള പാക്കേജ് പോലും ഉണ്ട് മഴയത്ത് കോടമഞ്ഞ് ഇറങ്ങുന്ന സ്ഥലങ്ങളിൽ ഒരുപാട് സഞ്ചാരികളെ അത് ആകർഷിക്കുന്നുണ്ട് ഇപ്പോൾ ആലപ്പുഴയിലാണെങ്കിൽ വേമ്പനാട്ട് കായലിൻ്റെ ഭംഗിയും കായലിലൂടെ ഉള്ള ബോട്ട് യാത്രയൊക്കെ മഴക്കാലത്താണ് കൂടുതൽ ആസ്വദിക്കാൻ സാധിക്കുന്നത് അപ്പോൾ തന്നെ ഈ മഴക്കാലത്ത് തന്നെ മത്സ്യ സമ്പത്ത് ഒരുപാട് കൂടും അപ്പോൾ ഈ ഫിഷിങ്ങ് മത്സ്യബന്ധനം അതായത് നമ്മൾ ബോട്ടിൽ സഞ്ചരിച്ച് നമുക്ക് തന്നെ മീനിനെ പിടിച്ച് പാകം ചെയ്ത് ഭക്ഷിക്കുന്ന ഒരു പാക്കേജ് ഇപ്പോൾ വളരെ പോപ്പുലറാണ് അങ്ങനെ മഴ ഒരുപാട് കാര്യങ്ങളിൽ ടൂറിസത്തെ ആകർഷിക്കുന്നുണ്ട് പക്ഷെ ഒപ്പം തന്നെ വിനോദ സഞ്ചാരികളെ ബാധിക്കുന്നുമുണ്ട് പല സ്ഥലങ്ങളിലും മഴ പെയ്ത് വെള്ളക്കെട്ടും മറ്റും രൂപപ്പെട്ട് ഗതാഗത തടസ്സം ഉണ്ടാകാറുണ്ട് കേരളത്തിലെ പ്രധാന പ്രധാന ആകർഷണം ആക്കാനായിട്ട് മഴ മൺസൂൺ ടൂറിസത്തെക്കുറിച്ചും മൺസൂൺ പാക്കേജിനെ കുറിച്ചൊക്കെ മൊത്തത്തിൽ എല്ലാവർക്കും ഒരു അവബോധം സൃഷ്ടിക്കുകയാണെങ്കിൽ ഇത് എന്തുകൊണ്ടും വളരെ നല്ല കാര്യമായിരിക്കും